പ്രകൃതിയാൽ വളരേയധികം ഭംഗിയായിട്ടുള്ള ഒരു നാടാണ് മലപ്പുറം എന്നുള്ളത് മലപ്പുറത്തിലെ ഓരോ നാടും ഓരോ സ്ഥലവും ഓരോ കാരണംകൊണ്ടെന്താണ് വളരെയധികം ഭംഗിയുള്ളതാണ് അല്ലെങ്കിൽ ഓരോ കാരണംകൊണ്ട് എന്താണ് വിശേഷിക്കപ്പെട്ടതാണ് ഇപ്പോൾ മലപ്പുറം എന്നുള്ള പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറം എന്നുള്ളത് എന്താണ് ഒരു കായിക മേഖലയെ എന്താണ് അതുപോലെത്തന്നെ മുസ്ലിം എന്നതിനും അതുപോലെത്തന്നെ എന്താണ് വളരെ അറിയപ്പെട്ടൊരു സ്ഥലമാണ് മലബാർ മലപ്പുറം എന്നുള്ളത് പ്രത്യേകിച്ചും മലപ്പുറം അല്ലെങ്കിൽ മലബാറിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽതന്നെ ടിപ്പുവിൻ്റെ കാലത്തുതന്നെ അറിയപ്പെട്ടൊരു സ്ഥലമാണ് മലബാർ എന്നുള്ളത് മറ്റുള്ള ജില്ലയേക്കാൾ ഏറ്റവും ഉയർന്ന രീതിയിൽ നിൽക്കുന്നൊരു സ്ഥലമാണ് അതിപ്പോൾ എഡ്യൂക്കേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെത്തന്നെ വികസനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലുമൊക്കെ മലപ്പുറം എന്തായാലും ഉയർന്നുതന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിൽ മലപ്പുറത്തെ ഒരു കോട്ടക്കൽ എന്ന പ്രദേശം എന്നുള്ളതെന്നു പറയാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല എന്തു കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് അവിടെ ധാരാളം ഉള്ളൊരു പ്രദേശമാണ് കോട്ടക്കൽ എന്നുള്ളത് എന്തുകൊണ്ടും തികച്ചും ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു ഗ്രാമമാണ് ഞങ്ങളുടെ ഗ്രാമം എന്നുള്ളത് പിന്നെ ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആളുകൾ നോക്കുന്നത് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ടർഫ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മലപ്പുറത്ത് ഇഷ്ടംപോലെയുള്ള സംഭവമാണ് അത് എന്നുള്ളത് ഫാഷൻ ഡിസൈനിങ് സ്ഥലങ്ങൾ സ്പോർട്ടുകൾ ഫുഡ് സ്പോർട്ടുകൾ അതുപോലെത്തന്നെ എല്ലാംകൊണ്ടും തീർത്തും ഒരു ഐശ്വര്യം നിറഞ്ഞൊരു നാടാണ് ഞങ്ങളുടെ നാട് എന്നുള്ളത്